ഹലോ ഇത് കസ്റ്റമർ കെയർ സർവീസല്ലേ ആ ഞാനാണെങ്കില് ഞാൻ റീചാർജ് ചെയ്തായിരുന്നു അത് നമ്പര് തെറ്റിപ്പോയിരുന്നു അപ്പം അത് റദ്ദാക്കാൻ പറ്റുമോ എനിക്കത് റദ്ദാക്കിക്കിട്ടിയിരുന്നുവെങ്കില് കൊള്ളാമായിരുന്നു ആ നമ്പര് മാറിപ്പോയി അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോ റദ്ദാക്കാൻ വേണ്ടിയിട്ട് റീചാർജ് ചെയ്ത തുക തിരിച്ചുകിട്ടാനോ എന്തെങ്കിലും അവരുടെ ഞാൻ അയച്ച അവരുടെ നമ്പരോ ഐ ഡിയോ എന്തെങ്കിലും വിശദമാക്കാൻ കഴിയുമോ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആ റീചാർജ് ചെയ്തതായിരുന്നു അത് മാറിപ്പോയിരിക്കുന്നു ആ തുക നമുക്ക് തിരിച്ചുകിട്ടാൻ തിരിച്ചുകിട്ടുമോ കിട്ടാൻ സാധിക്കുമോ അവരുടെ എന്തെങ്കിലും ഐ ഡി എന്തെങ്കിലും നൽകാൻ കഴിയുമോ ആ ഓക്കെ ആ ആ റീചാർജ് ചെയ്തത് കുറച്ച് മുമ്പാണ് റീചാർജ് ചെയ്തിരിക്കുന്നത് റീചാർജ് ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് ചെയ്തതായിരുന്നു അത് മാറിപ്പോയിരിക്കുന്നു ആ ഓക്കെ എന്തെങ്കിലും അവരുടെ ഐ ഡി ഒന്ന് തരാൻ സഹായിക്കണെ ആ പരിശോധിച്ചിട്ട് അയച്ചാല് മതി ഒക്കെ